ഒരു മനുഷ്യനെ ശരീരത്തിൻ്റെ എല്ലാ പേശികളും ഒരേ അളവിൽ ശക്തിപ്പെടുത്തുന്ന ഒരു വ്യായാമം ആണ് നീന്തൽ നീന്തൽ പരിശീലനം പരിപാടിയിൽ നാം ഏർപ്പെടുമ്പോൾ നമ്മുടെ ടോയ് മുതൽ വിരലിൻ്റെ കാൽ വിരലിൻ്റെ അറ്റം മുതൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേ ഞരമ്പുകളും ശരീര ഭാഗങ്ങളും ശരിയായി പ്രവർത്തിച്ച് ശിരസ്സിൻ്റെ തലമുടി അറ്റം വരെ

ഓരോ അനുനിമിഷങ്ങളിലുമത് ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു നീന്തലോളം പൂർണ്ണത കൈവരുത്താവുന്ന ഒരു വ്യായാമം നമുക്ക് വേറെയില്ല സാധാരണ മറ്റേത് വ്യായാമത്തിലേർപ്പെടുമ്പോഴും ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് ബലക്കൂടുതൽ ലഭിക്കുന്നു ബലക്കുറവുള്ളത് ബലം കുറവുള്ളത് ആശ്വാസം ലഭിക്കുന്നു ഉന്മേഷവാനാകുന്നു എന്നാൽ നീന്തൽ എന്ന സ്പോട്ട് ആക്റ്റിവിറ്റിയിൽക്കൂടി ഒരു മനുഷ്യനെ ശരീരത്തിലുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അസ്വസ്ഥതകളും അകന്നു പോകുന്നതായിട്ടാണ് കണ്ടു വരുന്നത് ഇന്ന് വ്യായാമങ്ങളിൽ നാം പലതും കൂടുതലും ജിമ്മും നടത്തവും ഓട്ടവും ഒക്കെ പരിശീലിക്കാറുണ്ടെങ്കിലും നീന്തലെന്നു പറയുന്ന സ്പോട്ട് നീന്തലെന്നു പറയുന്ന സ്പോട്ട് ആക്റ്റിവിറ്റിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം നന്നേ കുറവാണ് എന്നാൽ ഒരു തവണ നീന്തൽക്കുളത്തിൽ അല്ലെങ്കിൽ വളരെ ഒരു മിനിമം അൻപത് മീറ്ററ് നീളം ഇരുപത്തഞ്ച് മീറ്റർ വീതി ഉള്ള നീന്തൽക്കുളത്തിൽ സ്വിമ്മിങ് പൂളിൽ നീന്തി ശീലിക്കുന്ന ഒരാൾ ആ ഹാബിറ്റിൽ നിന്നും പുറകോട്ട് പോവുക വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്രമാത്രം ഊർജ്ജമാണ് ഈ നീന്തലില്ക്കൂടി ലഭിക്കുന്നത് പൊതുവേ മനുഷ്യന് ശാരീരികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എല്ലാം എത്രയും പെട്ടന്ന് അകറ്റുന്ന ഒരു സ്പോട്ട് ആക്റ്റിവിറ്റിയാണ് സ്ഥിരമായിട്ട് നീന്തലിൽക്കൂടി നമുക്ക് ലഭിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ സ്കിന്നിലുള്ള ചെറിയ ചെറിയ ചൊറിച്ചിൽ പോലെയുള്ള അസ്വസ്ഥതകളില്ലാതാകുന്നു നമുക്ക് ജലദോഷം പോലെയുള്ള അസ്വസ്ഥതകളുണ്ടാകുന്നു കാതിനും കണ്ണിനും ഒക്കെയുള്ള അസ്വസ്ഥതകൾ കുറഞ്ഞ് വരുന്നു ഇതിനെല്ലാം ഉപരി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ അസ്വസ്ഥകളും കുറഞ്ഞു വരുന്ന് എന്നുള്ളതാണൊരു വസ്തുത ആസ്ത്ത്മ പോലെ ശ്വാസകോശ സമ്പന്ധമായി അസ്വസ്ഥതകൾ ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്പോട്ട് ആക്റ്റിവിറ്റിയാണ് സ്വിമ്മിങ്ങെന്നു പറയുന്നത് കാരണം ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പല അസ്വസ്ഥതകളും അസുഖങ്ങളും ഉണ്ടാകാറുള്ളത് ഈ ജലദോഷമായാലും തുമ്മലായാലും കഫകെട്ടായാലും ചെസ്റ്റ് ഇൻഫെക്ഷനായാലും എല്ലാം നേരിട്ട് ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്നു അപ്പം നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സ്വിമ്മിങ് പൂളിൽപ്പോവുന്ന ദിവസം ഒരു മണിക്കൂറെടുക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററ് സ്വിം ചെയ്യാൻ സാധിക്കും ഒരു മുക്കാൽ മണിക്കൂറാണെങ്കിൽ മുക്കാൽ കിലോമീറ്ററ് സ്വിം ചെയ്യാൻ സാധിക്കും അപ്പം മുക്കാൽ കിലോമീറ്ററ് സ്വിം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ശാരീരിക സൗഖ്യം ഏറെ എത്ര വാക്കുകൾ കൊണ്ട് കൊണ്ട് പ്രകീർത്തിച്ചാലും അത് അധികമാകില്ല അപ്പോൾ എനിക്ക് അറുപത്തിനാല് വയസ്സുള്ള സീനിയർ സിറ്റിസണായിട്ടുള്ള എനിക്ക് എൻ്റെ ഇപ്പോഴുള്ള ചുറുചുറുക്കിനും ആരോഗ്യത്തിൻ്റേയും രഹസ്യം ഈ സിമ്മിങ് പൂള് എക്സർസൈസാണെന്ന് ഞാനടിവരയിട്ട് ഇവിടെ പ്രസ്താവിക്കുകയാണ് ഓക്കെ താങ്ക് യു